എടാ നി എവിടെയാണ് ഉള്ളത് ആണോ എടാ എനിക്കെ ഡെലിവറി ആവശ്യത്തിനായിട്ടൊരു വാൻ വേണം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ പൈസ കുറച്ച് കൊറവാണ് അപ്പോൾ ഞാൻ വിച്ചാരിക്കുന്നത് ഒരു വായ്പ എടുക്കാമെന്നാണ് അപ്പോൾ മറ്റേ ഇപ്പോൾ പുതിയൊരു പരിപാടി ഇല്ലെ പരിവാഹൻ സേവയിലൂടെ വായ്പ എടുക്കാൻ പറ്റുന്നത് വാനിനു വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നു പറഞ്ഞു തരുമോ ആണല്ലേ നമ്മൾ പരിവാഹൻ സേവയിൽ പോയിട്ട് ഓഫീസിൽ പോയിട്ട് അപേക്ഷ കൊടുക്കണമല്ലേ ആ ആ എന്നിട്ട് നമ്മളെ ബാങ്കിലേക്ക് ലോണ് വരുമല്ലേ അപ്പോഴത് നമ്മളെത്ര നാൾ കൊണ്ടത് തിരിച്ച് അടയ്ക്കണം വായ്പ തിരിച്ചടവ് എന്ത് എപ്പോഴാണ് ആ അങ്ങനെയാണല്ലേ ആ ശരി ശരി അപ്പോൾ പരിവാഹൻ സേവേയിൽ പലിശയൊക്കെ എങ്ങനെയാണ് വരിക ആ അത് ഞാൻ ഒരു പുതിയ ഒരു സംരംഭം തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് വാന് അപ്പോൾ അതാണ് ആ എടാ ഓക്കെ ഓക്കെ ശരി ശരി